ഹലോ എടാ ഞാനാ പിന്നെ ഫിസിയോതെറാപ്പി കഴിഞ്ഞില്ലേ അപ്പം ഞാനിതിന്റെ മാസ്റ്ററ് ചെയ്യാനായിട്ട് ഇങ്ങനെ യു കെ നോക്കുന്നുണ്ടായിരുന്നേ അപ്പം എനിക്ക് അവിടുന്ന് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നു അവിടത്തെ കോളേജിൽ നിന്ന് കാര്യങ്ങളെല്ലാം റെഡിയായി ഞാന് കാനഡയില് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളും കൂടുതല് നമുക്കവിടെ പ കൂടുതല് പഠിച്ചാലൊക്കെ കാനഡയില് ഡിപ്ലോമയാണ് നമ്മളിപ്പം മാസ്റ്റർ ചെയ്യാൻ പോയിക്കഴിഞ്ഞാൽ യു കെ ആണെങ്കിൽ അതൊരു നമുക്ക് തന്നെ ഒരു മാസ്റ്റെര് കോഴ്സായിട്ട് കിട്ടും അപ്പം ഞാനങ്ങോട്ട് അപ്ലൈ ചെയ്തു എന്റെ കാര്യങ്ങളെല്ലാം റെഡിയായി പോകാനായിട്ടുള്ള എല്ലാം ആയി അപ്പം എനിക്കിനി എൻ്റെ പാസ്പോര്ട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു അതായത് എന്റെ ഇതായി ചെറുതിലത്തെയായിരുന്നു പാസ്പോര്ട്ട് അപ്പം എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം അപ്പം നമുക്ക് അതിന് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്ന് ഒന്ന് പറഞ്ഞ് തരാമോ എന്തൊക്കെ സര്ട്ടിഫിക്കറ്റ്സ് വേണം പിന്നെ ഫോട്ടോസ് വേണോ അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ ആധാറ് അത് കറക്റ്റായിട്ട് ഒന്ന് പറയാന് പറ്റുവോ പിന്നതുപോലെ തന്നെ ഫോട്ടോയൊക്കെ എടുക്കുമ്പം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വൈറ്റ് വേണോ അങ്ങനെ ഒക്കെ എന്തേലും റൂൾ ഉണ്ടോ ഒന്ന് പറയാവോ കാരണം നേരത്തെ ഒക്കെ ഞാന് ഓരോ എക്സാമിനൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഫോട്ടോസിനൊക്കെ ഇങ്ങനെ ബാക്ഗ്രൌണ്ടൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മള് എടുത്തിട്ടുണ്ട് അപ്പം ഈ ഇതിന് നമ്മള് അപ്ലൈ ചെയ്യുമ്പഴും അതുപോലെയൊക്കെയാണോ നമ്മള് ആദ്യം എന്താ ചെയ്യേണ്ടത് പാസ്പോര്ട്ട് അപ്ഡേറ്റ് ചെയ്യണമെങ്കില് എവിടെ ആണ് നമ്മള് പോകേണ്ടത് അക്ഷയയിലാണോ പോണേ പോകേണ്ടത് അതോ പാസ്സ്പോര്ട്ട് ഓഫീസിലാണോ